ആ ഹലോ സാറേ ഇത് വാട്ടർ അതോറിറ്റിയിലെ സാർ ആളല്ലേ ആ ഹലോ സാർ ഞാൻ ആലില പുഴയിൽ നിന്ന് വീട്ടിൽനിന്നാണ് വിളിക്കുന്നത് മായത്ത് ആലില പുഴ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നതേ ആ ഹലോ സാർ കുറച്ച് ദിവസം ആയിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരുന്ന പൈപ്പ് ലൈനിലെ വെള്ളം വളരെ മോശപ്പെട്ട മലിന ജലമാണല്ലോ വരുന്നത് ഞങ്ങൾ നേരത്തെയും കംപ്ലയിൻ്റ് ചെയ്തതാണ് ഈയിടെ ആയിട്ട് സ്ഥിരമായിട്ട് മലിനജലം സ്മെല്ലോട് കൂടിയ വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് സാർ അത് കാരണം ഒരു വൺ വീക്ക് മുൻപ് ചെയ്തതായിരുന്നു അപ്പോഴത് നോക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആരും വന്നിട്ടില്ല വീണ്ടും അത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് സാർ ഇപ്പഴും ഞങ്ങൾക്ക് കുടിക്കാൻ ആയിട്ട് വെള്ളം ഒന്നും ഇല്ല അതെ മോശപ്പെട്ട വെള്ളമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സാർ ആ പക്ഷെ സാർ പിന്നെ ആ അതെ അത് തോട്ടപ്പുറത്തെ വീട്ടിലൊക്കെ നല്ല വെള്ളമാണ് സാറ് അവർക്ക് കിട്ടുന്നത് എന്നാണ് പറയുന്നത് അല്ലോ സാറേ അപ്പം നമുക്ക് മാത്രമാണ് എന്താ ഇത്ര പ്രോബ്ലം ആയിരിക്കും പ്രശ്നമായിരിക്കുന്നത് അതെ ആ അതെ അതെ അതെ അവർ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് നല്ലതാണ് കിട്ടുന്നത് നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് അവരെ വിളിക്കാൻ ഒക്കെയാ പറയുന്നത് അതെന്താ സാർ അങ്ങനെ വെള്ളം വരുന്നത് നമ്മുടെ എല്ലാവരുടെയും വാട്ടർലെ കണക്ഷൻ എല്ലാം ഒന്ന് തന്നെയല്ലേ സാർ എല്ലാവർക്കും വെള്ളം ഒരുപോലെയല്ലേ സാർ പോകുന്നത് നമ്മുടെ കുളം ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യ് സാറ് ഒത്തിരി നാളായല്ലോ കുളം അത്ര ക്ലീൻ ആയിട്ടില്ലല്ലോ സർ ആ ഓക്കേ നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് പോകുന്ന ആ ഭാഗത്തുള്ള എല്ലാവർക്കും കുഴപ്പം ഇല്ല നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീടിനും കൂടെ ഈ പ്രോബ്ലം ഉണ്ട് സാർ അതെ ആ ഒരു സൈഡിൽ ഞങ്ങക്ക് മൊത്തം ഇതാണ് ഇതായിട്ടാണ് വരുന്നത് സാർ ഇപ്പം നമുക്ക് ഒരാഴ്ചയായിട്ട് വെള്ളമില്ല ഞങ്ങൾക്ക് വെള്ളം കുടിക്കാനില്ല അങ്ങനെത്തെ വലിയ പ്രശ്നങ്ങളുണ്ട് സാർ ഇവിടെ

ഫണ്ട് ഒന്നും ഇല്ലേ സാർ ഫണ്ട് ഒന്നും ഇല്ലേ എന്തായാലും നമുക്ക് നമുക്ക് അടിയന്തരമായിട്ട് നാളെയെങ്കിലും തന്നെ ഒന്ന് ശരിയാക്കി തരണം സാർ നമുക്ക് വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല സാർ ഞങ്ങൾ പഴയ ഞങ്ങളെ ഇവിടെ പേയ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ സർ ആ ആ ആ ഓക്കേ ഇനി എന്തെങ്കിലും അപേക്ഷകൾ ഒക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഒരാൾ പറഞ്ഞു അപേക്ഷ കൊണ്ട് തരണം എന്നൊക്കെ പറയുന്നു രണ്ടു മൂന്നു പ്രാവശ്യം അപേക്ഷ കൊടുക്കാൻ പറ്റുമോ അപ്പോൾ ഇനി സാറ് സാറിൻ്റെ പേരെന്താണ് സാറ് സാറിനോട് സംസാരിച്ചാൽ മതിയല്ലോ വേറെ ആരേയും വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ സാർ ആ സാറിൻ്റെ പേരൊന്നു പറയൂ സർ മാത്യു സാർ അല്ലേ ഓക്കേ സർ ഞാൻ സാറിനെ നാളെ വിളിക്കാം നാളെയെങ്കിലും ആളെ വിടണേ സാർ ഒരാഴ്ചയ്ക്കകം എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം സാർ ആ ശരി സർ ഓക്കെ ഓക്കെ താങ്ക് യൂ